ഇപ്പോൾ തനതായിട്ടുള്ളൊരു സംസ്കാരത്തിൻ്റെ പല രീതിയിലുള്ള കലകളും കാര്യങ്ങളുമൊക്കെയുണ്ട് ഇപ്പം കലകൾന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയ്നായിട്ടുള്ളത്ന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൻ്റെ തന്നെ ഒരു നല്ലൊരു കലയാണ് കഥകളിയെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും കഥകളി ഇപ്പോഴും കളിക്കുന്ന പല രീതിയിലുള്ള ആൾക്കാരും ഒക്കെ നമ്മുടെ കേരളത്തിൽ ഇഷ്ട്ടം പോലെ ഉണ്ട് കൂടുതലായിട്ടും കഥകളി കളിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് മെയ്നായിട്ട് ഈ ആലപ്പുഴ ആ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും കഥകളിയൊക്കെ കളിക്കുന്നത് കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് വിനോദസഞ്ചാരികളൊക്കെ കൂടുതലായിട്ടും വരുന്നത് ഈ ആലപ്പുഴയാണ് അപ്പം ആലപ്പുഴയില് ഇപ്പോൾ ഹൗസ് ബോട്ടിലക്കെ കളിക്കുന്ന കളികൾന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മോഹിനിയാട്ടം കഥകളി ഇങ്ങനത്തെക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് കളിക്കുന്നത് അപ്പം അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടൊക്കെ കഥകളിയും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് അപ്പം പിന്നെ കരകൗശല വസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പല രീതിലുള്ള കരകൗശല വസ്തുക്കലും കാര്യങ്ങളൊക്കെ ഇപ്പമുണ്ട് നമുക്കിപ്പം അതായത് ഇപ്പം മൺചട്ടി നിർമ്മാണം ഇതക്കേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു കരകൗശല വസ്തുവാണ് ഇപ്പം അങ്ങനെ മൺചട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല